ഹലോ എൻ്റെ പേര് നാസറ്ന്നാണ് തുറുപ്പ് വീട്ടിൽ നാസർ അങ്ങനെയാണ് വിളിക്കണത് ഞാൻ ഇവിടുന്ന് വീട് മാറി കാക്കനാട്ടിലേക്ക് മാറിയാർന്നു ഈ കുറവനങ്ങാണ്ട് ഭാരത് ഗ്യാസല്ലേ ആ അതല്ലേ അപ്പം ഞാൻ അവിടുന്ന് ഗ്യാസ് എടുത്തോണ്ടിരുന്നു അപ്പം അത് അവിടത്തെ ഇത് റദ്ദാക്കിയിട്ട് കാക്കാനട്ടിലോട്ട് മാറ്റാൻ ആയിരുന്നേ അതിന് വിളിച്ചതാർന്ന് അപ്പം റദ്ദാക്കാൻ ആ റെഫറൻസ് ഐ ഡി പറഞ്ഞാൽ റദ്ദാക്കാമല്ലേ ആ റെഫറൻസ് ഐ ഡി ഇതാണ് എ ആ ബുക്ക് ഇങ് എടുത്തേടീ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ആറ് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി രണ്ട് എഴുപത്തി എട്ട് പത്ത് ഇരുപത്തി നാല് ആ പത്ത് ഇരുപത്തി നാല് പത്ത് ഇരുപത്തി നാല് ആ ഇതിലേക്ക് ആ അത് റദ്ദാക്കിയേക്കണേ അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ നിർദ്ദേശം വരും അല്ലേ ആ റദ്ദായിട്ട് ഉണ്ടെന്നും പറഞ്ഞ് മസ്സേജ് വന്നേ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ